ഏതൊരു ബിസിനസ് ആയാലും നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും നിയമപരമായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പം അത് ഓരോ ബിസിനെസ്സിനെയും ആശ്രയിച്ച് ഇരിക്കും ആ ബിസിനസ്സിൻ്റെ സ്വഭാവത്തെ ആശ്രയിച്ചാണ് അതിൻ്റെ നിയപരമായ പല കാര്യങ്ങളും നടക്കുക അപ്പോൾ എല്ലാത്തിനും ബേസിക്ക് ആയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിൻ്റെ കാര്യത്തിൽ നിന്ന് നിയപരമായിട്ട് അനുമതി മേടിക്കണം അത് എന്ത് ഇത്ര പൈസക്ക് മുകളിൽ അല്ലെങ്കിൽ ഇത്ര വരുമാനത്തിന് മുകളിൽ നടക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതിന് ലൈസെൻസ് എടുക്കുക എന്നതാണ് നമ്മളിപ്പോൾ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നഗരസഭയിലാണോ ചെയ്യുന്നത് അവിടുന്ന് അതിന് വേണ്ടിയുള്ള ലൈസെൻസ് അല്ലെങ്കിൽ പെർമിഷൻ ഫസ്റ്റ് ചെയ്യുക പിന്നെ അങ്ങോട്ട് ഓരോ ബിസിനെസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ സ്വഭാവത്തിന് അനുസരിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെതായ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ബിസിനസ്സിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക